ആ ഗുഡ് മോർണിംഗ് എന്താണ് ആവശ്യം ഇരിക്ക് കേട്ടോ ഇരിക്കൂ ഇരിക്കൂ ഉം പറഞ്ഞോളൂ ആ പോസ്റ്റിൽ തന്നെ ആണോ തട്ടിയത് ആ പോസ്റ്റിൽ തട്ടിയെങ്കിൽ പിന്നെ വർക്ക്ഷോപ്പ് പോയാൽ പോരെ എന്തിനാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത് ഉം ഉം ശരി അപ്പോൾ ക്ലെയിം ചെയ്യാൻ ആണെങ്കിൽ നിങ്ങളുടെ ആർ സി ബുക്കും ലാസ്റ്റ് എടുത്ത ഇൻഷുറൻസിൻ്റെ പേപ്പറും താ കൈയ്യിൽ ഉണ്ടെങ്കിൽ തരൂ

ഉം ആർ സി ബുക്ക് നിങ്ങളുടെ പേരിൽ തന്നെ ആണോ ആ എങ്കിൽ ലൈസൻസും പിന്നെ ആധാർ കാർഡും കൂടെ തരണേ ഈ ലൈസൻസ് എക്സ്പെയർ ആയത് ആണല്ലോ ഇത് ഒരു മാസം ആയി ഇതിപ്പം എക്സ്പെയർ ആയിട്ട് അത് നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്ന് പറയുന്നത് എന്താണ് അത് ഈ പത്ത് വർഷം കൂടുമ്പോൾ എക്സ്പെയർ ആകും ലൈസൻസ് എന്ന് ഉള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങൾ ഈ എക്സ്പെയർഡ് ആയ ലൈസൻസിൻ്റെ കാര്യം ബോധവാൻ അല്ല ഇതിനെ പറ്റി ഒന്നും

അത് അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലല്ലോ ലൈസൻസ് ഒക്കെ ആവുമ്പോൾ എല്ലാ കാര്യങ്ങൾ എല്ലാ ഡോക്യൂമെൻറ്റ്സും നമ്മൾ നോക്കണം എക്സ്പെയർ ആവുന്ന ഡേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കണമല്ലോ ഇതിപ്പം ഇൻഷുറൻസിന് കൊണ്ട് വന്നപ്പോഴെങ്കിലും നിങ്ങൾക്ക് എടുത്ത് നോക്കി കൂടായിരുന്നോ ഈ ഇൻഷുറൻസ് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ ലൈസൻസ് എക്സ്പെയർ ആയിരിക്കുകയാണ് ഈ ലൈസൻസ് ഇല്ലാണ്ട് നിങ്ങൾ ഈ ഡ്രൈവ് ചെയ്തത് തെറ്റാണ് കുറ്റകരം ആയിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ആ എനിക്ക് എനിക്ക് മനസ്സിലായി അത് പക്ഷെ നിങ്ങൾ അറിഞ്ഞ കാര്യം ആണ് ലൈസൻസ് ആണെങ്കിലും ഏതൊരു ഡോക്യൂമെൻറ്റ് ആണെങ്കിലും ഇത് ഇടയ്ക്ക് എടുത്ത് നോക്കണം എക്സ്പെയറി എപ്പോഴാണ് നോക്കി അത് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട സമയത്ത് തന്നെ അത് റിന്യൂ ചെയ്യാം ചെയ്തിരിക്കണം മനസ്സിലായോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ക്ലെയിം ക്ലെയിം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അപ്ലൈ ചെയ്ത് നോക്ക് പിന്നെ ഈ ലൈസൻസ് ഇല്ലാണ്ട് ഈ ഡ്രൈവ് ചെയ്തതിൻ്റെ പേരിൽ വേണമെങ്കിൽ കേസ് വരെ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് അത് അറിയാലോ അല്ലേ അല്ലേ

അത് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഇപ്പോൾ നിങ്ങൾ എന്തായാലും റിന്യൂ ചെയ്യൂ എന്നിട്ട് ഒന്നും കൂടെ അപ്ലൈ ചെയ്ത് നോക്കൂ ഈ ഇൻഷുറൻസിൻ്റെ കാര്യം ഇപ്പോൾ എന്തായാലും ഇത് പറ്റില്ല നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ല നിങ്ങൾ അത് ആദ്യം കൊണ്ട് റിന്യൂ ചെയ്യാൻ നോക്കൂ ഓക്കെ ഓക്കെ ഓക്കെ